ആ അതെ അതെ ഡാ എന്താ ആ ആ എന്താ ഡാ പേര് ആ ആ രേഷ്മ ആ ആ ആ ആ

ആ ആ അങ്ങനെ ആണോ ആ ഇവിടെ അറിയാമല്ലോ ഡാ കോളേജ് ഇപ്പോൾ നമ്മുടെ പാലക്കാടിലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ഹിസ്റ്റോറിക് നല്ല ചരിത്ര പാരമ്പര്യം ഉള്ള ഒരു കോളേജ് ആണ് ആ ആ ആ ഞാൻ ആ ആ ഞാൻ ഇവിടെ ആണ് ഞാൻ ഇപ്പോൾ ഡിഗ്രിയും പിജി ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തത് ഫിസിക്സ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ ആ അപ്പം ഇവിടെ കുഴപ്പം ഇല്ല ടീച്ചേർസും കാര്യങ്ങളൊന്നും കുഴപ്പം ഒന്നും ഇല്ല പഠിപ്പിച്ച് ഒക്കെ തരാറുണ്ട് പിന്നെ ഇത് ഇപ്പോൾ ഒരു ആർട്ട്സ് കോളേജ് ആയത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ ടീച്ചേർസും നല്ല കാര്യങ്ങളും കുഴപ്പം ഒന്നും ഇല്ല ഞാൻ ഇവിടുന്ന് തന്നെ പിജി ചെയ്യുന്നത് ഇനി ഇപ്പം നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ആ അപ്പം ആ ആ അത്യാവശ്യം എന്താ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു വാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ആണ് ലൈബ്രറീം കാര്യങ്ങളൊക്കെ നമുക്ക് റഫറൻസ് ചെയ്യാൻ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ എങ്ങനെ കുഴപ്പം ഫിസിക്സ് കുഴപ്പം താൽപ്പര്യത്തോടെ എടുത്തത് തന്നെ അല്ലേ ആ ആ ആ ഇവിടെ വിക്ടോറിയയിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വിക്ടോറിയയിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം നമുക്ക് അഡ്മിഷൻ കിട്ടുക പറഞ്ഞാൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് ആണ് ഫിസിക്സിന് ഭയങ്കര ഇത് ആണ് ആ ആ ആ അപ്പം അതു തന്നെയാണ് അപ്പോൾ പിജി ചെയ്യാമെന്ന് വെച്ചാലും കുഴപ്പം ഇല്ല നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അഥവാ ഫിസിക്സിൽ ഇൻ്ററസ്റ്റഡ് ആണെങ്കിൽ ഓ ഇവിടെ വേണെങ്കിൽ ആ കിട്ടും ആണെങ്കിൽ വിക്ടോറിയയിൽ വരാം കുഴപ്പം ഇല്ലടാ ആ ആ അവിടെ പന്ത്രണ്ട് സീറ്റ് ആണ് ഉള്ളത് ആ അതെ കുറവാണ് ഇവിടെ സീറ്റ് ശരിക്കും ആ വിക്ടോറിയയിൽ വരണേക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ഇൻസ്റ്റിട്യൂട്ട് നല്ലത് ആണ് പിന്നെയും കുഴപ്പം ഇല്ല പിന്നെ ന മുക്ക് കാസ്റ്റിൻ്റെ ഒക്കെ ഒരു ആ ആ ആ ആ ആ കുഴപ്പം താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം എവിടെ പഠിച്ചാലും കുഴപ്പം ഒന്നും ഇല്ല പിന്നെ നമുക്ക് അത്യാവശ്യം പന്ത്രണ്ട് സീറ്റേ ഉള്ളൂന്ന് പറയുമ്പം നമുക്ക് കാസ്റ്റിൻ്റെ ഒരു ഭയങ്കരം ഒരു കാസ്റ്റിൻ്റെ വരുന്നോണ്ട് പെട്ടെന്ന് നമുക്ക് സീറ്റ് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ ഓപ്പൺ കാസ്റ്റ് ഒക്കെ ആണേൽ പെട്ടെന്ന് നമുക്ക് കേറാം ഓപ്പണിൽ ബിഡബ്ല്യു ഒക്കെ ആണേൽ പെട്ടെന്ന് നമുക്ക് കേറാം അപ്പം കാസ്റ്റ് റെസ്ട്രിക്ഷൻ ഒക്ക ഉള്ളോണ്ട് നമുക്ക് കിട്ടുന്നതും ഉറപ്പ് ഒന്നും പറയാൻ പറ്റില്ല ആ ആ അപ്പം കുഴപ്പം ഇല്ല ഇവിടെ കോളേജ് നല്ല പുരാതന കോളേജ് ഒക്കെ ആണ് കുറേ എന്താ പറയുക നല്ല നമുക്ക് എന്താ പറയുക അറിയുന്ന കുറേ ആൾക്കാർ ഒക്കെ പഠിച്ചിട്ട് ഒക്കെ ഉണ്ട് അവിടുത്തെ ടീച്ചേർസ് ആയിക്കോട്ടെ കുഴപ്പം ഇല്ല നല്ല ടീച്ചേർസ് ഒക്കെ ആണ് ഫിസിക്സ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ പിന്നെ പിജി ആയതും ആ ഇല്ല ഇല്ല ഇല്ല ഫീസ് ഒന്നും കാര്യങ്ങൾ ഒന്നും ഇല്ല ഇപ്പോൾ ഗവൺമെൻറ്റ് കോളേജ് ആയതോണ്ട് ഇപ്പം നമുക്ക് ആരും അഡ്മിഷൻ സമയത്ത് ആരതും എന്തെങ്കിലും ചെറിത് ആയിട്ട് എന്തെങ്കും ഫീസ് എന്തെങ്കിലും ഉണ്ടാവും വേറെ ഇപ്പം നമുക്ക് ഒന്നും ഇല്ല പിന്നെ നമ്മൾ പിജി ആണ് ആ കുഴപ്പം ഇല്ല നമുക്ക് പിജി ആകുമ്പം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളത് എൻഗേജ്ഡ് ആയിരിക്കും ആ നമുക്ക് വേറെ സമയം ഒന്നും കിട്ടാറില്ല നമ്മൾ ഫുൾ ലാബും നമ്മടെ കാര്യങ്ങളും ഫുൾ നമ്മൾ എൻഗേജ് പ്രോജക്റ്റ് നമുക്ക് അറിയാമല്ലോ പിജിയിൽ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രോജക്റ്റ് ചെയ്യാണ് ഒരാളാണ് നമ്മടെ പ്രോജക്റ്റ് ഏറ്റെടുക്കുക നമ്മൾ ഡിഗ്രി പറയുമ്പം നമ്മൾ നാല് ആള് ചെയ്തിട്ട് ഗ്രൂപ്പ് വർക്ക് ആണ് എടുക്കണ്ടത് ആണ് അപ്പം നമ്മൾ ആ ഫിസിക്സ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് പിജി എടുക്കാം പിന്നെ എന്നിട്ട് നോക്കാം അപ്പോൾ വിക്ടോറിയ എടുക്കാണ് വെച്ചാൽ കുഴപ്പമില്ല നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നല്ല എന്താ പറയുക ലേശം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേർസ് ആണ് അപ്പോ നമുക്ക് ഇവിടെ ഒരു നല്ല ഒരു

ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ഓക്കെ ഡാ ആ ആ ഓക്കെ ആ ശരി ശരി ആ